ഡെങ്കിപ്പനി മലേറിയ അതൊക്കെ കൊതുകുകള് പരത്തുന്ന രോഗങ്ങളാണ് ഇത് പരത്ത് പരത്തുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊതുകായത്കൊണ്ട് കൊതുകിനെ നമ്മള് ഓടിക്കാനുള്ള മാര്ഗങ്ങളൊക്കെ നോക്കണം കൊതുക് മെ എങ്ങനെ ആണെന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ കൊതുക് നമുക്ക് അങ്ങനെ പ് പൂര്ണ്ണമായിട്ടൊന്നും അതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല പിന്നെ എങ്കിലും നമ്മുടെ പാ ചാ അതായത് പറമ്പിലും നമ്മുടെ മിറ്റത്തും വീടുകളിലും അകത്തും ഒക്കെയുള്ള കുറച്ചൊക്കെ കാര്യങ്ങള് നമ്മള് നോക്കി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമുക്ക് പ്രതികരിക്കാന് പ്രതി പ്രതിരോധിക്കാൻ പറ്റും കേട്ടോ അത് കൊതുകാണല്ലോ ഇതിന്റെ എല്ലാം മെയിനായിട്ടുള്ള ആള് ഇത് ഈ ഡെങ്കിപ്പനിയെക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എല്ലാവര്ക്കുമറിയാം ഭയങ്കര പനിയും കാര്യങ്ങളോക്കെ ആയിരിക്കാം അതിന് ശരീര വേദനയും കാര്യങ്ങളും ഒക്കെ ഒത്തിരിയുണ്ട് അതെല്ലാം വരാതിരിക്കുന്നതാണ് നല്ലത് വരാതെ നോക്കണം എന്നുള്ളത് വരാതെ നോക്കാനുള്ള മാര്ഗങ്ങളും നമ്മള് പലതുണ്ട് അത് അതെല്ലാം നമ്മള് ചെയ്യണം ഇപ്പം ഈ മഴയൊക്കെ പെയ്യുന്ന സമയം ആയതുകൊണ്ട് വെള്ളവെല്ലാം അങ്ങ് എല്ലായിടത്തുമൊക്കെ കെട്ടി കിടക്കാനായിട്ടൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട് ഈ ചെറിയ ചെറിയ ചെറിയ ഓരോ പാത്രങ്ങളാണേലും ചിരട്ടകളാണേലും പിന്നെ ഓരോ ചെറിയ കുഴികളാണേലും അതിനകത്തൊക്കെ ഈ കരിയിലയും എല്ലാംകൂടെ കൂടി കിടക്കുമ്പോഴത്തേക്കിന് അതിനകത്തെല്ലാം കൊതുക് പോയി മുട്ട ഇടും മുട്ട ഇട്ടിട്ട് പിന്നെ അതെല്ലാം പെരുകി അതെല്ലാം വലിയ കുറച്ച് കഴിയുമ്പത്തേക്കിനും അങ്ങ് വലിയ വലിയ കൊതുകുകളായിട്ട് പിന്നെ അത് ആയിരിക്കും അത് എല്ലാ കൊതുകുകളും മലേറിയയും ഡെങ്കിയും ഒന്നും പരതുന്നതെന്ന് പറയാന് പറ്റത്തില്ല അന്നാലും അതിനകത്ത് ചിലതൊക്കെ കാണുവായിരിക്കും ഈ മലേറിയയും ഡെങ്കിയും ഒക്കെ പരത്തുന്നത് അതിനെയൊക്കെ നമ്മള് കൊ നോക്കി ഓരോന്നും ഓരോന്ന് നോക്കി അതേതാ ഡെങ്കുവാണോ അതോ മലേറിയ ആണോ എന്നൊന്നും നോക്കി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അതില് നല്ലത് കൊതുകുകളധികം പെരുകാതിരിക്കുക വേണ്ടിയിട്ടുള്ള മാര്ഗങ്ങളൊക്കെ നമ്മള് നോക്കുക എന്നുള്ളതാണ് വെള്ളവൊന്നും ഒരിടത്തുവൊന്നും കെട്ടി കിടക്കാതെ ചിരട്ടയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിരട്ടയൊക്കെ ഇങ്ങനെ നേരെ ഇരിക്കാതെ അതെല്ലാം കമത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വെള്ളമൊക്കെ നിറയാതെ ഇരിക്കും വെള്ളം കെട്ടി കിടക്കുമ്പളാണല്ലോ അതിനകത്തൊക്കെ കൊതുക് പോയി മുട്ട ഇടുന്നതും അത് പെരുകുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഈ കരിയിലകളൊക്കെ ആണേലും കൂടി കിടക്കുന്നതൊക്കെ കുറേയൊക്കെ നമ്മുടെ വീടിനോട് ചേര്ന്നുള്ളതൊക്കെ ഒത്തിരി പറമ്പിലോട്ടുള്ളതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീടിനോട് ചേര്ന്നുള്ളതൊക്കെ നമ്മള് അടിച്ച് വാരി ഇടയ്ക്കിടയ്ക്ക് തീ ഇടുകയും തീയിട്ട് കത്തിക്കുമ്പത്തേക്കിന് അതിന്റെ കൊതുകിന്റെ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചത്ത് പൊക്കോളും പിന്നെ ഇടയ്ക്ക് ഒക്കെ ഈ പുകയൊക്കെ ഇട്ടിട്ട് പെരയ്ക്കകത്തൊക്കെ കയറുന്ന കൊതുകിനെയൊക്കെ നമ്മള് ഒന്നിന്നെ കുന്തിരിക്കം പുകയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമ്മള് അതിനെയൊക്കെ ഓടിച്ച് വിടണം പിന്നെ നമ്മൾ ഈ മുറിക്കാകത്തൊക്കെ കയറാതിരിക്കാനായിട്ടൊരു രാത്രി ആകുമ്പത്തേക്കും നമ്മള് ജനല്ലെല്ലാം അടച്ച് കൊതുകിനെയൊന്നും കയറാത്ത രീതിയിലും മുറിയൊക്കെ ജനലൊക്കെ അടച്ച് കതകുകളെല്ലാം ഒക്കെ അടച്ചിടുവാണെന്നുടെങ്കിൽ കുറെയൊക്കെ നമുക്ക് അതിനെയൊക്കെ കയറ്റാതിരിക്കാൻ നോക്കാം പിന്നെ നമ്മള് ഈ ജനലൊക്കെ കുറച്ച് ഈ വല പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് പിടിപ്പിക്കുവാണെന്നുണ്ടെങ്കില് വലിയ കൊതുക് ശല്യം ഒക്കെ നമക്ക് മാറ്റാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടേൽ കുഞ്ഞുങ്ങൾക്ക് മൊത്തത്തിൽ നമ്മള് കൊതുക് വളയൊക്കെ മേടിച്ചിടുവാണെങ്കില് കൊതുക് വന്ന് രാത്രിയിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ അതുങ്ങളെയൊക്കെ കടിക്കാതിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയത്തില്ലല്ലോ കൊതുകാണ് എപ്പളാണ് വരുന്നത് കടിക്കുന്നത് എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതിനെയൊക്കെ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഏകദേശം ഒരു കൊതുകിനെയൊക്കെ നമുക്ക് അധികം അകത്ത് കയറ്റാതിരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടുള്ള മാര്ഗങ്ങളാവും നമ്മള് നമ്മുടെ കൊ കുറച്ച് അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് നമ്മള് കുറെയൊക്കെ ശുചി ശുചിത്വം പാലിക്കുവാണെന്നുണ്ടെങ്കില് ഇത്ര രോഗങ്ങളൊന്നും അത്ര പകരത്തൊന്നുമില്ല വലിയ രീതിയിൽ പകരാതെ നമുക്ക് അതിനെ തടഞ്ഞ് നിര്ത്താനൊക്കെ പറ്റും നമ്മള് ഈ പുകയ്ക്കുമ്പത്തേക്കിന് അതിന്റെ ഒക്കെ മ കുഞ്ഞുങ്ങളും ഒക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഒളിച്ചിരിപ്പുണ്ടെങ്കില് അതുങ്ങളൊക്കെ ഇറങ്ങി വെളിയിലോട്ട് പൊക്കോളും ഈ മുറിയിലാണെങ്കിലും കതികിന്റെ ഇടയിലും കട്ടിലിന്റ അടിയിലും അലമാരിക്ക് അടിയിലും ഒക്കെ കയറി ഇരിക്കുന്നത് പുകയൊക്കെ ചെല്ലുമ്പത്തേക്കിനും കുറെ ഒക്കെ അതുങ്ങളൊക്കെ ഇറങ്ങി പൊക്കോളും അപ്പം പിന്നെ ഈ രാത്രി നമ്മള് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ കയറി കടിക്കത്തൊന്നുവില്ല അങ്ങനെയുള്ള മാര്ഗങ്ങളൊക്കെ നോക്കുക അല്ലാതെ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ മഴക്കാലവല്ലേ വരുന്നത് ആ മഴക്കാലത്ത് നമ്മള് കുറെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കില് നമ്മൾ ഈ വെള്ളവൊക്കെ ആധികം വെള്ളവൊന്നും അവിടെയൊന്നും കിടക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വ് കുഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മൂടിക്കളയുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു മാര്ഗങ്ങളാണ് ക ഒരു വീട്ടില് അവനോന് നോക്കുവാണെന്നുണ്ടെങ്കില് ഈ വലിയ വലിയ രോഗങ്ങളൊന്നും പരാ രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും ഒരാള് തന്നെ നോക്കിയി കാര്യവില്ല എല്ലാവരും അതിനുള്ള കാരണങ്ങള് ഓരോ വീടുകളില് അതിനുള്ള പ്രതിരോധ കാര്യങ്ങളെല്ലാം ചെയ്യണം ഓരോ വീട്ടുകാര് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു രോഗം വലിയൊരു രോഗം പകരാതെ എല്ലാവരെയും ആ രോഗത്തില് നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അത് ഓരോ മനുഷ്യരുടേയും കടമയാണ് ഓരോ ഓരോ വീട്ടുകാരുടെയും കടമയാണ് അത് നമ്മള് ഒരാളുടെ കടമയാണ് അല്ല അടുത്ത ആളുടെ കടമയാണെന്ന് മാത്രം ചിന്തിക്കാതെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മാത്രം ചിന്തിച്ച് പോകുവാണെന്നുടെങ്കിൽ നമുക്കതെല്ലാം പ്രതിരോധിക്കാൻ പറ്റും